ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെപ്പറ്റി പറയുമ്പോള് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നതാണ് ബ്രിട്ടീഷുകാര് അവരുടെ കൊളോണിയൽ ഭരണകാലത്ത് കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടേത് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയുടേത് അപ്പോള് ഈ പറഞ്ഞപോലെ ഈ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോള് വന്നിട്ട് കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോള് കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാൻ കടു കടുകട്ടിയായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അവർക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല പിന്നെ ഇതിൻ്റെ കൂടെത്തന്നെ വേറെ കുറേ എക്സാമും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ ബ്രിട്ടീഷുകാര് ചെയ്തതാണ് അവര് ചെയ്തുവച്ചതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്ന് ഞാൻ പറഞ്ഞു അപ്പോള് ഈ ബ്രിട്ടീഷുകാര് ഇതെന്തുകൊണ്ട് ചെയ്തൂ എന്നുവച്ചാല് അവർക്ക് വേണ്ടിയിരുന്നത് ഈ അവരുടെ ആജ്ഞകൾ ആജ്ഞകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെയായിരുന്നു അപ്പോള് ഇതുപോലെതന്നെ ഇത് ഇവരുടെ വിദ്യഭ്യാസ സമ്പ്രദായത്തിലൂടെ അവര് നേതാക്കളെയല്ല അവര് സൃഷ്ടിച്ചത് അവര് സൃഷ്ടിക്കാൻ അവര് തുനിഞ്ഞതെന്തെന്നുവച്ചാൽ അവർക്ക് വേലക്കാരായി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇന്ത്യക്കാരെ വേണം ഇംഗ്ലീഷും ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനുമറിയുന്ന കുറച്ച് ഇന്ത്യക്കാരെ വേണം ആ ഒരു രീതിയിലാണവര് അത് കൊണ്ടുവന്നത് പിന്നെ ഇപ്പോള് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തുള്ള പ്രശ്നങ്ങളെന്ന് പറയുമ്പോള് കുട്ടികൾക്ക് ഈ പഠ പഠിക്കാനുള്ള ബുദ്ധിമുട്ടും ഈ സമയകൊ ത്തിൻ്റെ പ്രശ്നങ്ങള് ഒണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ കുട്ടികൾക്ക് ജീവിതത്തില് ദൈനംദിന ജീവിതത്തില് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളെ കുറച്ചുകൂടെ പഠിപ്പിക്ക പഠിപ്പിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ ഈ നമ്മുടെ സമ്പ്രദായത്തിലെന്നുവച്ചാല് കുറെ മാത്ത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിപ്പിക്കുന്നു പക്ഷെ നിത്യജീവിതത്തില് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുചോദിച്ചുകഴിഞ്ഞാൽ നമ്മള്ക്ക് പറ്റുമോ ഇല്ലയോന്ന് അറിയില്ല അപ്പോള് നമ്മള്ക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റണം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കില് നമുക്ക് നല്ലതായിരുന്നു അപ്പോള് ആ ഒരു രീതിയില് നമ്മള് കുട്ടികളെ വാർത്തെടുക്കുകയാണെങ്കില് നമുക്ക് ഇന്ത്യക്ക് അടുത്ത ഒരു മുതൽക്കൂട്ട് ആയിരിക്കും എപ്പോഴും പിന്നെ നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ വേറൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കള് കുട്ടികളെ ഈ പറഞ്ഞപോലെ കുട്ടികളെ ഒരുപാട് എക്സാമുകളിലേക്കും എൻട്രൻസ് ടെസ്റ്റുകളിലേക്കുമെല്ലാം തള്ളിവിടുന്നു പിന്നെ കുട്ടികളെ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോള് അവർക്ക് കലാകായികപരമായുള്ള കാര്യങ്ങളെല്ലാം ഈ ഇതില്ത്തന്നെ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കലാകായികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കഴിഞ്ഞാല് കുട്ടികള് ചിലപ്പോള് അതില് അഭിരുചിയുള്ള കുട്ടികള് കാണും ഇപ്പോള് പടം വരയ്ക്കുന്ന കുട്ടികള് കാണും പാട്ടു പാടുന്ന കുട്ടികള് കാണും നല്ലപോലെ ഓടുന്നത് ചാടുന്നത് അങ്ങനെയുള്ള സ്പോർട്സ് ഐറ്റംസിലൊക്കെ കുട്ടികള് നല്ല മികച്ച കുട്ടികള് കാണും അപ്പോള് ഇങ്ങനെയുള്ള കാര്യങ്ങളുംകൂടെ ഇതില് പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും എപ്പോഴും ബുക്ക് തുറന്നുവച്ചു പഠിക്കുക ബുക്ക് വായിക്കുക അങ്ങനെയുള്ളതല്ലാതെ കുട്ടികളെ മറ്റുള്ള എക്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ വളർച്ച അവരുടെ വളർച്ച ഇതുചെയ്യുക എന്നുള്ളത് പിന്നെ ഇന്ത്യൻ വിദ്യാഭ്യസ സമ്പ്രദായം എൻ ഇ പി കൊണ്ടുവന്നതിനുശേഷം എൻ ഇ പി വായിച്ചതിൽനിന്നെനിക്ക് മനസിലായത് ന്യൂ എജ്യുക്കേഷൻ പോളിസി അതിലൊരുപാട് മാറ്റങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് നല്ല മാറ്റങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒന്നാം ക്ലാസ്സുമുതല് നാലാം ക്ലാസ്സുവരെയുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ബേസ് പഠനം കൊണ്ടുവന്നതായി ഞാൻ കണ്ടു അപ്പോള് അത് വളരെ നല്ല കാര്യമാണ് കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നതിലത് വളരെ ഒരു നല്ലതായിരിക്കും അപ്പോള് ഇങ്ങനെ ഇങ്ങനെ നല്ലനല്ല മാറ്റങ്ങള് നമ്മുടെ ഇന്ത്യൻ വിദ്യഭ്യാസ സമ്പ്രദായത്തില് കൊണ്ടുവന്നുകഴിഞ്ഞാൽ നമ്മള്ക്ക് നമ്മുടെ കുട്ടികളെ നല്ലൊരു നാളെക്കായി നമുക്ക് വാർത്തെടുക്കാം നല്ലൊരു നല്ല കഴിവുള്ള നല്ല നല്ല ഊർജസ്വലരായിട്ടുള്ള നല്ല ഒരു ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും നമ്മുടെ ഈ ഈ നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നന്ദി